അങ്ങനെ പറയാനായിട്ടാണെങ്കിൽ ഞാനൊരു പ്രോഫഷണല് ഫോട്ടോഗ്രാഫറല്ല പക്ഷെ ഫോട്ടോഗ്രഫി എന്ന എന്നതിനെ ഇപ്പം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാന് കൂടുതലും ഫോട്ടോസെടുക്കുന്നതില് അല്ലെങ്കില് വീഡിയോസെടുക്കുന്നതില് കൂടുതൽ സന്തോഷം കണ്ടെത്തുകയും സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്നൊരു വ്യക്തി എന്നുൾ എന്ന നിലയിലെനിക്ക് തീര്ച്ചയായും പറയാന് സാധിക്കും ഫോട്ടോഗ്രാഫി ഞാന് വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നത് കൂടുതലായി ഞാന് എടുക്കുന്ന ഫോട്ടോസ് ആളുകളെക്കാട്ടിലും ഉപരി ഞാനെടുക്കുന്ന ഫോട്ടോസ് പ്രകൃതിയുടേതാണ് പ്രകൃതിയുടേതെന്നു പറയുമ്പോള് അതിൽ മേഘങ്ങൾ മഴ അതുപോലെതന്നെ മൂൺ സണ്ണ് സൂര്യന് ചന്ദ്രന് ഇവയെല്ലാം ഉള്പ്പെടുന്നുണ്ട് ചന്ദ്രന്റെ ഫോട്ടോസും കൂടുതൽ എടുക്കാനായിട്ട് ഞാന് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാന് എടുക്കുന്ന ഫോട്ടോസെല്ലാം തന്നെയും എന്റെ ഫോണിലാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരുകാര്യം എന്റെ ഫോണിൽ ഫോട്ടോസെടുക്കാനാണ് ഞാന് കൂടുതലും എനിക്ക് ഇഷ്ടം കാരണം ക്യാമറയിൽ ഞാനധികം ഫോട്ടോസ് എടുത്തു നോക്കിയിട്ടില്ല അതു പോലെ തന്നെ കൂടുതലും കുറച്ചും കൂടി എളുപ്പമായിട്ടെനിക്ക് തോന്നിയിരിക്കുന്നത് ഫോണിൽ ഫോട്ടോസെടുക്കുന്നതു തന്നെയാണ് എനിക്കൊരു ഐ ഫോണാണുള്ളത് അതു കൊണ്ടു തന്നെയും കുറച്ചും കൂടി ഞാനെടുക്കുന്ന ഫോട്ടോസ് എനിക്ക് നല്ല രീതിയിൽ എന്താപറയുക നല്ലരീതിയിൽ ക്ലാരിറ്റിയിൽ അതു പോലെ തന്നെ നല്ല രീതിയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിനു മറ്റൊരുകാര്യം ഫോട്ടോഗ്രാഫി ഇതു പോലെയുള്ള ശില്പശാലകള് പങ്കെടുത്തിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ ഇല്ല ഞാനങ്ങനൊന്നും പോയിട്ടില്ല അതാണ് ഞാന് പറഞ്ഞത് ഞാനൊരു പ്രൊഫഷണല് ഫോട്ടോഗ്രാഫറല്ല പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കുന്ന രീതി ടെക്നിക്ക് എന്നൊക്കെ ഉള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കില് ഫോണില് കൂടി തന്നെയാണ് ഞാന് ഫോട്ടോസ് എടുക്കാറുള്ളത് അവതിൽ ഞാന് സെറ്റിങ്സൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് എഡിറ്റിയാനായിട്ട് മറ്റുള്ള ആപ്പുകളും ആപ്ലിക്കേഷന്സും ഞാന് യൂസ് ചെയ്യുന്നതാണ് എന്നതാണ് മറ്റൊരു കാര്യം ഇതില് പറയാനുള്ളത്